തീർച്ചയായിട്ടും എനിക്ക് നീന്തൽ എന്നു പറയുന്നത് ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ നീന്തൽ പഠിക്കാനുള്ള കാരണം തന്നെ ചെറുപ്പത്തിൽ വെള്ളം കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ അതിൽ കുളത്തിൽ മുങ്ങിയത് കൊണ്ടാണ് മുങ്ങി രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ കൈകൾ എടു കൈകൾ ഇട്ട് അടിച്ച് അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നെ അതൊരു ആഗ്രഹമായി നീന്തൽ പഠിക്കണമെന്ന് പിന്നെ നീന്തൽ പഠിച്ചു അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് നീന്തൽ പഠിക്കാനും മറ്റുള്ളവരെ നീന്തൽ പഠിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടുമുണ്ട് പഠിപ്പിച്ചിട്ടുമുണ്ട് അവരുടെ അടുത്ത് എപ്പഴും നീന്തൽ പഠിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പഴും ഒരു എന്തെങ്കിലും ചെറിയ സാഹചര്യം നമ്മൾ ഈ വെള്ളത്തിൽ മുങ്ങുന്ന പോലുള്ള ചെറിയ സാഹചര്യങ്ങൾ എപ്പോഴും വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും തനിയെ നീന്തി പഠിക്കണം എന്നാണ് ഞാൻ അവരെ ഉപദേശിക്കാറ് അതുകൊണ്ട് വലിയ കുളങ്ങൾ അല്ലെങ്കിൽ വലിയ പുഴകൾ ഒന്നുമല്ല ചെറിയ സ്വി സ്വിമ്മിംഗ് പൂള് അങ്ങനത്തേതിലൊക്കെ പോയി പഠിക്കാൻ ഞാൻ എപ്പോഴും ഉപദേശം കൊടുക്കാറ്